എനിക്ക് തുന്നാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് ഡ്രസ്സ് കണ്ടാലും ഏത് മോഡൽ പറഞ്ഞാലും അതിനനുസരിച്ച് തുന്നാനുള്ള കഴിവ് ഉണ്ട് മോഡലുകൾ തുന്നി ഇടാറുമുണ്ട് എന്റെ പിള്ളേർക്കാണെങ്കിലും തുന്നി കൊടുക്കാറുണ്ട് അപ്പോൾ അതിൽ ഒരു കഴിവ് ഉണ്ട് അത് ഇപ്പോൾ എങ്ങനെയാണ് വികസിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കാൻ പോയിട്ടൊന്നുമില്ല അത് അടിച്ച് അടിച്ച് ഇങ്ങനെ ഓരോ മോഡലു കണ്ട് സ്വയം വെട്ടിനോക്കി അത്പോലെ അടിച്ച് അടിച്ച് പഠിച്ചതാണ്